ആ അതെല്ലോ പറയൂ മേഡം

ആ ആ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യും മേഡം എന്തൊക്കെയാണ് വേണ്ടത് ആ എന്നത്തേക്ക് വേണ്ടിയാണെന്നൊന്ന് പറയൂ മേഡം ഒക്ടോബർ പത്ത് ആക്ചുലി നമ്മൾ എല്ലാം ചെയ്ത് തരും മേഡം ഇപ്പം കല്യാണത്തിന് വേണ്ട കല്യാണത്തിൻ്റെ തലേ ദിവസത്തെ കാര്യങ്ങൾ തൊട്ട് പിറ്റേ ദിവസത്തെ കാര്യങ്ങൾ വരെ മൊത്തത്തിലുള്ളത് നമ്മൾ ഏറ്റെടുക്കാറുണ്ട് ഇപ്പോൾ തലേ ദിവസത്തേക്ക് ഫുഡ്ഡ് ആണെങ്കിൽ അത് പാർട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനുള്ള ഡ്രിങ്സ് കാര്യങ്ങൾ അതുപോലെ തന്നെ ഐസ് ക്രീം ഐറ്റംസ് ഫുഡ്ഡ് എല്ലാം പിന്നെ ഡെക്കറേഷൻസ് ആണെങ്കിൽ എല്ലാ കാര്യം ആർച്ച് പിന്നെ മറ്റേ സ്റ്റേജ് എന്തൊക്കെ വേണമെങ്കിലും നിങ്ങൾക്ക് ഞങ്ങൾ ഒരു പിക്ക് അയച്ച് അതിൽനിന്ന് നിങ്ങൾക്ക് ഏതാ ഇഷ്ട്ടപ്പെട്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ നമ്മളവിടെ അറേഞ്ച്മെന്റ്സ് ചെയ്തുതരും ആ ഓഡിറ്റോറിയമാ വേണ്ടതെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്ത് തരും മേഡം വീട്ടിൽ ഫങ്ങ്ക്ഷൻ ആണെങ്കിൽ നമ്മൾ ജെസ്റ്റ് സ്റ്റേജ് സെറ്റാക്കി തരും അതുപോലെ തന്നെ മറ്റേ കർട്ടൻസ് കാര്യങ്ങളൊക്കെയിടണമെങ്കിൽ അതൊക്കെയിടും പിന്നെ ലൈറ്റിങ് അങ്ങനെയാണെങ്കിൽ ആ ലൈറ്റിങ് ചെയ്ത് തരും അതുപോലെത്തന്നെ ഫുഡ്ഡ് കാര്യങ്ങൾ ലൈക്ക് എല്ലാ ഉണ്ടാകും തലേ ദിവസത്തെയാണെങ്കിലും പിറ്റേ ദിവസത്തെയാണെങ്കിലും മണ്ഡപമാണെങ്കിൽ നമ്മൾ മണ്ഡപമൊക്കെ അറേഞ്ച്മെന്റ് ചെയ്ത് തരും കുറേ പിക്സൊണ്ട് നമ്മൾ ചെയ്ത ഐറ്റംസിൻ്റെയൊക്കെ അതൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് തരും നിങ്ങൾക്കിഷ്ടപ്പെട്ട ഐറ്റംസ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളതുപോലെ അവിടെ അറേഞ്ച്മെന്റ് ചെയ്ത് തരും മേഡം ഫുഡ്ഡ് നിങ്ങൾക്ക് വെജ്ജാ വേണ്ടതെങ്കിൽ വെജ് ഐറ്റംസ് ചെയ്ത് തരും ഇത്ര കൂട്ടം കറികളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എത്ര കൂട്ടം വേണ്ടതെന്നു വെച്ചാൽ അത് നമുക്ക് അറേഞ്ച്മെന്റ് ചെയ്ത് തരാൻ പറ്റും അതിനനുസരിച്ചായിരിക്കും ക്യാഷിൻറെ കാര്യങ്ങളൊക്കെ അതുപോലെത്തന്നെ നോൺ വെജ്ജ് ആണെങ്കിൽ ചിക്കൻ ഐറ്റമൊന്ന് വരും അതുപോലെത്തന്നെ അച്ചാർ ചർള്ളാസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉപ്പ് ലൈക്ക് വെള്ളം വാട്ടറ് ഇതൊക്കെ നമ്മൾ തന്നെ അറേഞ്ച്മെന്റ് ചെയ്ത് തരും മേഡം എമൗണ്ട് ഫുഡ്ഡ് ഐറ്റംസിൻ്റെ ഇതനുസരിച്ചായിരിക്കും ഇപ്പം നോൺ വെജ്ജാണെങ്കിൽ നമ്മൾക്കെല്ലായിടത്തും വരുന്നത് ഒരേ റേറ്റു തന്നെയായിരിക്കും ഇപ്പോൾ അമ്പത് ബിരിയാണിക്കാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ചോദിക്കുന്നത് സെവൻ തൗസൻഡ് ആണ് അതുപോലെത്തന്നെ ഹൺഡ്രഡ് ഹൺഡ്രെഡ് ഇതിന് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് അങ്ങനെയൊക്കെ ആ അപ്പോൾ ആ വണ്ടികൾ ആ വണ്ടികളൊക്കെ നമ്മൾ തന്നെ അറേഞ്ച്മെന്റ് ചെയ്ത് തരും മേഡം നിങ്ങൾക്ക് വേണ്ടത്ര അതേപോലെ അറേഞ്ച്മെന്റ് ചെയ്ത് തരും

ആ നിങ്ങൾക്ക് കാറാ വേണ്ടതെങ്കിൽ കാറ് ബൈക്കാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ വധൂനും വരനും പോവാനുള്ള ബുള്ളെറ്റ് ബൈക്ക് ആർ എസ് അങ്ങനെ എന്തേലും വണ്ടി വണ്ടിയാ വേണ്ടതെങ്കിൽ അത് നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്ത് തരും അതുപോലെത്തന്നെ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് പോവാനുള്ളതൊക്കെയാണെങ്കിൽ കാറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറേഞ്ച്മെന്റ് ചെയ്ത് തരും ഇനി ജീപ്പ് വേണമെങ്കിൽ അങ്ങനെ അറേഞ്ച്മെന്റ് ചെയ്ത് തരും അതുപോലെത്തന്നെ നിങ്ങക്കിഷ്ടത്തിനനുസരിച്ചുള്ള വാഹനങ്ങൾ ഞങ്ങൾ അറേഞ്ച്മെന്റ് ചെയ്ത് തരും മേഡം ആ നിങ്ങൾ ശരിയായിട്ട് വിളിച്ചാൽ മതി ആ ഓക്കെ ഓക്കെ